ആദ്യത്തെ സംഖ്യ പതിനെട്ട് രണ്ടാമത്തെ സംഖ്യ നൂറ്റി മുപ്പത്തി ആറ് മൂന്നാമത്തെ സംഖ്യ അഞ്ഞൂറ്റിപ്പതിനെട്ട് നാലാമത്തെ സംഖ്യ രണ്ടായിരത്തി മുപ്പത്തി ആറ് അഞ്ചാമത്തെ സംഖ്യ ഒമ്പതിനായിരത്തി നാല്പത്തി എട്ട്